സ്ത്രീയാണ് ധനം എന്നൊക്ക പറയും പക്ഷേ സ്ത്രീധനമില്ലാതെ എവിടെയെങ്കിലും കയറി ചെല്ലാൻ പറ്റുമോ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള സ്ത്രീധനം കൊടുത്തിട്ട് ചെന്നാലും നമ്മള് ചെല്ലുന്ന ഇടത്ത് നമ്മള് അടിമ വേലയായിരിക്കും പണ്ട് കാലത്തെ സംബന്ധിച്ചാണെങ്കിൽ ചെന്ന് കയറുമ്പം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കുഴപ്പമില്ല പിന്നെ എത്ര സ്ത്രീധനം കൊണ്ടുവന്നതാണേലും പത്തല്ല ഇരുപതല്ല നാൽപ്പത് പവനായിട്ട് വന്നതാണെങ്കിലും ആ കുടുംബത്തിലെ ജോലി മുഴുവനും സ്ത്രീയ്ക്ക് മാത്രമുള്ളതാണ് വന്ന് കയറിയ ആൾക്കുള്ളതാണ് അങ്ങനെ എന്താ പറയുക പണ്ട് കാലത്തൊക്കെ എട്ടും പത്തും പേരൊക്കെ മക്കളുണ്ട് ആ കുടുംബത്തിലെ കഷ്ടപ്പാട് ചില്ലറയല്ല അവരെ സഹായിക്കാനായിട്ട് ആരും ഇല്ല എന്നാൽ ഇന്നത്തെക്കാലത്ത് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവര് പഠിപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ് സ്ത്രീകള് കുഞ്ഞുങ്ങള് പെൺകുട്ടികള് ആൺകുട്ടികളെപ്പോലെ തന്നെ പഠിക്കുന്നത് കൊണ്ട് അവർക്കും ഇന്ന് ജോലി ഉണ്ട് അപ്പം ജോലി ഉണ്ടെങ്കിലും സ്ത്രീധനം ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യപ്പെടുന്നില്ല പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതെന്തെങ്കിലും കൊടുക്കൂ എന്ന് പറയും കൊടുക്കാം അല്ലേ കൊടുത്തേ വിടുകയുള്ളു എന്ന് പറയും ആ പോകുന്നവർക്ക് തന്നെ പത്തും മുപ്പതും നാപ്പതും പവൻ കൊടുക്കുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് ആ അതുവായിട്ട് ചെന്നാലും ആ വീട്ടിൽ ചെന്ന് കയറുന്ന പെൺകുട്ടികൾക്ക് എന്നും ബുദ്ധിമുട്ടും കഷ്ടപ്പാട്കളും മാത്രമുള്ളൂ കാരണം അവര് ജോലിക്കും പോകണം വീട്ടിലെ ജോലിയും ചെയ്യണം തിരിച്ച് വന്നാല് വീട്ടിലെ ജോലി ചെയ്യണം ജോലി സ്ഥലത്ത് ഓഫീസ് വർക്ക്കളാണെങ്കിൽ അതിന് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ഭാര്യയും ഭർത്താവും ഒരേ ജോലി ചെയ്യുന്നവരായിരിക്കണം എന്നില്ല ചിലപ്പം നേഴ്സായിരിക്കാം ഡോക്ടറായിരിക്കാം ചിലപ്പം വിദ്യാഭ്യാസം കുറവുള്ളവരാണെങ്കിൽ അതനുസരിച്ച് കൂടുതലുള്ളവര് അതനുസരിച്ചുള്ള ജോലി കുറവുള്ളവരതനുസരിച്ചുള്ള ജോലി എങ്ങനെയായിരുന്നാലും സ്ത്രീധനത്തിൻ്റെ പേരിൽ കുത്ത് കിട്ടുന്ന അല്ലേൽ കുത്ത് വാക്കുകൾ കേൾക്കുന്നവര് ഇന്നും ഉണ്ട് പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഒരു വിവാഹത്തിന് ചെന്ന് കഴിഞ്ഞാല് പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഡ്രസ്സായിരുന്നു കൊടുക്കുന്നത് ചുരിദാറായിരിക്കാം സ്ത്രീകളിലാണെങ്കില് പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ സാരി ആയിരിക്കാം ചുരിദാറായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ആൺകുട്ടികൾക്കാണേല് ഷർട്ട് ചിലപ്പം വാച്ച് അങ്ങനെയുള്ള ഐറ്റംസായിരിക്കും കൊടുക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഇന്നത്തെക്കാലത്ത് സ്വർണത്തിന് തീപിടിച്ച വിലയാണ് എന്നാൽ പോലും സ്വർണം കൊടുക്കാതെ ഇതിപ്പം പോകുന്നവരും ഇല്ല കാരണം കൂടപ്പിറപ്പുകളുടെ മക്കളുടെയൊക്കെ കല്യാണമാണെങ്കിൽ എങ്ങനെ എങ്കിലുവൊക്കെ കാരണം പവൻ ഒപ്പിക്കണ്ടേ അതുകൊണ്ട് സ്വർണ്ണം കൊടുക്കുന്നവരുണ്ട് അതിലുപരി ചിലരൊക്കെ ക്യാഷ് കൊടുക്കുന്നവരുണ്ട് ഈ സ്ത്രീധനം എന്ന ഒര് നിലപാടേ ഇല്ലാതെ ഇരിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതല് ഒത്തിരി കുടുംബങ്ങളെ കാരണം ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനം കിട്ടും കാരണം വേറൊന്നുവല്ല ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാനായിട്ട് കഷ്ടപ്പെടുന്നത് ഒത്തിരി വളരെ ബുദ്ധിമുട്ടിയാണ് പക്ഷേ കുഞ്ഞ്ങ്ങളെ നാലും അഞ്ചും പത്തും ലക്ഷം രൂപ കൊടുത്ത് പഠിപ്പിച്ചെടുക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് ആ കുഞ്ഞുങ്ങളെ അതേ തുക തന്നെ കൊടുത്ത് കെട്ടിച്ചും വിടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ആ വിദ്യാഭ്യാസമാണ് സമ്പത്ത് എന്ന് കാണുന്നവര് ഒണ്ട് എങ്കിൽ ഞങ്ങൾക്ക് ഒര് ഒരു താലിമാല കഴുത്തിൽ അത്യാവശ്യം ഓക്കേ അറ്റ്ലീസ്റ്റ് വേണം അത് മാത്രം മതി എന്നുള്ളൊരിതിൽ രീതിയിലേക്ക് വരികയാണ് എങ്കിൽ ഒര് കല്യാണ മോതിരം അത്യാവശ്യം കാതില് ഒര് കമ്മല് ഒര് താലിമാല ഇങ്ങനെയൊരു രീതിയിലേക്ക് സമ്പ്രദായത്തിലേക്ക് വരികയാണെങ്കിൽ സമ്പത്ത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവല്ലോ അങ്ങനൊരു സ്ത്രീധനം വാങ്ങുന്നത് കുറ്റകരമാണെന്നൊക്ക പറയും പക്ഷേ സ്ത്രീധനം വാങ്ങുന്നവരേ ഉള്ളു അപ്പം ഇപ്പം സ്ത്രീധനമായിട്ട് കൊടുക്കുന്നില്ല എനിക്കിഷ്ടമുള്ളത് എൻ്റെ മകൾക്ക് കൊടുത്തേക്കാം ആ അതില് പകരം ആ കുഞ്ഞിൻ്റെ പേരിലേക്ക് ക്യാഷായിട്ടത് അക്കൗണ്ടില് ആ കുഞ്ഞിന് പേരില് ഒരു നിക്ഷേപിച്ച് ഇടാങ്കിൽ അവക്കെന്തെങ്കിലും ഒരാവശ്യം വരുമ്പോൾ ആ ക്യാഷ് ഉപകരിക്കാം അങ്ങനെയൊരു നിയമനത്തിലേക്ക് വരുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്